ഞാനൊരു സാധാരണ ഒരു നാട്ടിൻ പുറത്തുകാരിയാണ് ഒരു ഗ്രാമത്തിൽ താമസിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം ഞങ്ങളെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത എന്നു വെച്ചാൽ എല്ലാവർക്കും ഭയങ്കര ഒത്തൊരുമയാണ് ഞങ്ങളുടെ നാട്ടിലെ എല്ലാ ആളുകളും ഒന്നിച്ചു കൂടുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ഞങ്ങളുടെ ഭഗവതി കാവിലെ തെയ്യമാണ് ഭഗവതി കാവിലെ തെയ്യത്തിന് എല്ലാവരും നമ്മളുടെ നാട്ടിലുള്ള എല്ലാവരും ഒത്തുകൂടും ഒരുമിച്ച് ആ കാവിൽ വരും അവിടെ ഭക്ഷണം ഉണ്ടാകും എല്ലാവരും ഒരുമിച്ച് അതായത് വലിപ്പ ചെറുപ്പം ഇല്ലാതെ പണക്കാർ പാവപ്പെട്ടവർ എന്നിലാതെ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കും ആഘോഷിക്കും അങ്ങനെ ചെയ്യുന്നതാണ് ഞങ്ങളുടെ ഭഗവതി കാവിലെ തെയ്യം എന്ന് പറയുന്നത് എല്ലാ ആളുകളും ആ അതായത് ഇപ്പം പുറത്തു പോയവരാണെങ്കിലും കല്യാണം കഴിഞ്ഞ് പുറത്തു പോയതാണെങ്കിലും ജോലിക്ക് പുറത്തു പോയവരാണെങ്കിലും ഒക്കെ ലീവ് എടുത്തിട്ട് ആ സമയത്ത് നമ്മളുടെ ഭഗവതി കാവിൽ എത്തും അത് നടക്കുക ഏകദേശം മാർച്ച് പകുതി അങ്ങനെയാകുമ്പോഴാണ് ഏകദേശം പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് ആ തീയതികളിലൊക്കെയാണ് ഈ തെയ്യം ഉണ്ടാകുന്നത് ആ സമയത്ത് എന്തായാലും എല്ലാവരും നമ്മുടെ നാട്ടിൽ നിന്ന് പുറത്തു പോയവർ ആണെങ്കിലും അല്ലെങ്കിൽ നാട്ടിന് ചുറ്റും ഉള്ളവരാണെങ്കിലും എല്ലാവരും അവിടെ എത്തുകയും ഒത്തൊരുമിച്ച് നിൽക്കുകയും എല്ലാവരും ഒരുമിച്ച് എന്താ പറയുക ഒരു വിരുന്നു കൂടുകയും അങ്ങനെയൊക്കെ ചെയ്യും നല്ല മനോഹരമായ ഒരു തെയ്യമാണ് അവിടെ നടക്കുന്നത്